എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകമെന്ന് വെച്ചാൽ ലൈബ്രറിയിൽ ഫുട്ബോളസിനെ കുറിച്ച് എഴുതിയത് ഫുട്ബോൾ സ്പോർട്സ് മാഗസീന്ന് പറയുന്നതാണ് അത് ഓരോ ഇതിഹാസങ്ങളെ കുറിച്ചും അവർ കടന്ന് പോകുന്ന ജീവിതത്തെ കുറിച്ചും എല്ലാം അതിൽ കറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മളൊക്കെ അത് വായിക്കുമ്പോഴേക്കും ഒരു ഇൻസ്പിറേഷനാണ് മനസ്സിനു വരുന്നത് അതുപോലെ തന്നെ അവരുടെ അച്ഛനാണേലും അമ്മയാണേലും ഓരോരുത്തരു മരിച്ചിട്ടും അവർ തന്നെ താനായി ആ വലിയച്ഛൻ്റെ വല്യമ്മേടെ കൂടെ അവർ തന്നെ ജീവിച്ച് അവർ തന്നെ ജോലിക്ക് പോയിട്ട് അവർ തന്നെ പൈസ ഉണ്ടാക്കി വന്ന് ട്രാവല് ചെയ്ത് ഫുട്ബോള് കളിക്കാൻ പോയി അവരുടെ മടുപ്പും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവരെല്ലാരും ഫുട്ബോളിനെ സന്തോഷത്തോടെ ഏറ്റെടുത്തു അതിനെ കണ്ടു അവർ വളർന്നു വരുമ്പോൾ കണ്ടു ഒരു ഇതിഹാസം വളർന്നു വരുന്നത് കണ്ട് അവിടുത്തെ ജനങ്ങൾ അയാളെ ഏറ്റെടുത്തു പിന്നെ ഒരു ഫുഡ്ബോളിലെ സുൽത്താനായി വാഴിച്ചു അങ്ങനെ ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിഹാസങ്ങളായ റൊണാൾഡോ മെസ്സി നെയ്മർ ഇവരെ കുറിച്ച് മൂന്ന് പേരെക്കുറിച്ച് എഴുതിയേക്കുന്ന പുസ്തകങ്ങൾ അതെല്ലാം ഇഷ്ടമാണ് കാരണം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒരു ഫുട്ബോൾ ഫാനാണ് അതുപോലെ തന്നെ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫുട്ബോള് കളിക്കാറുമുണ്ട് അതുപോലെതന്നെ അവർ വന്ന ടൈമും അവരുടെ ദാരിദ്ര്യങ്ങളും എല്ലാം നടന്നതായിരുന്നു ആ പുസ്തകത്തിൽ എ എഴുതി വെച്ചേക്കുന്നത് അത് ഓരോരുത്തർക്കാണേലും നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തു കൊണ്ട് അങ്ങനെ ചേഞ്ച് ആയിക്കൂടാ നമുക്ക് എന്തുകൊണ്ട് അത്പോലെ ആയിക്കൂടാ എന്നുള്ള ഓരോ കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി അവർ കടന്നു വന്ന സാഹചര്യങ്ങൾ അവർ കടന്നു വന്ന ബുദ്ധിമുട്ടുകൾ അവർ നേടിയ പ്ര പ്രതിസന്ധികളും അങ്ങനുള്ള ഓരോരോ കാര്യങ്ങളും അത് വളരെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വായിക്കുമ്പോഴും നമുക്കും അതുപോലൊരു പ്രചോദനമാണ് ഉണരുന്നത് വളർന്ന് വരുന്ന യുവ തലമുറയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂട ഇവരെ എന്തു കൊണ്ട് ഇൻസ്പ്പയർ ആയിക്കൂടാ ഇവരെ എന്തുകൊണ്ട് ഐഡോൾ ആക്കിക്കൂടാ ഹീറോസ് ആക്കിക്കൂടാ നമ്മളിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്തും കാണും ഇതുപോലോരോ വ്യക്തികൾ നമ്മളവരെ കണ്ടെത്തി അവർക്ക് ചിലപ്പം പറ്റത്തില്ലായിരിക്കും ഇവരെ പോലെ പോലും പറ്റത്തില്ലായിരിക്കും വളർന്നു വരാൻ അങ്ങനുള്ള സാഹചര്യങ്ങളിലായിരിക്കും അവരെ കണ്ടെത്തി അങ്ങനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വരെ ഈ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് എന്തു കൊണ്ടും നമ്മൾ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നു ഈ സ്പോർട്സ് മാഗസീൻ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്